പത്തൊൻപത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തൊന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പതിനഞ്ച് നാല് രണ്ടായിരത്തി മൂന്ന് പതിനാറ് എട്ട് രണ്ടായിരത്തി ആറ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്